എൻ്റെ എന്നെ നൃത്തം പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് അമ്മ പഠിച്ച ഒരാളാണ് ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട് സ്കൂളിലുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് കൂടാതെ ഞാൻ സ്വന്തം നൃത്തം പഠിപ്പിച്ചിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ജില്ലയിലേക്കൊക്കെ മത്സരിച്ചിട്ടുണ്ട് അമ്മ പഠിച്ച് പകുതിയാക്കി വച്ച അത്രയും ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേ പോലെ ഇപ്പം ഞാൻ പഠിക്കുന്നുണ്ട് ഭരതനാട്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു അങ്ങനെ പഠിക്കുന്നുണ്ട് എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു മെയിൻ ഗുരു അമ്മ ചെറുപ്പം മുതലേ പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് പല സ്റ്റേജുകളിലും നൃത്തം ചെയ്യാൻ പറ്റിയത് എനിക്കു വേറെ ഒക്കെ ഉള്ള കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റിയത് അങ്ങനെയൊക്കെ എൻ്റെ അമ്മ അമ്മ കാരണമാണ് പറ്റിയത് നൃത്തം പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നുമുണ്ട്